ഹലോ ചേട്ടാ ചേട്ടൻ്റെ നെറ്റ്വർക്ക് കണക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് ഓക്കേ വൈഫൈ അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്പീഡ് ഇല്ല പൈസ തന്നതിന് ഒരു മുതലാകാത്തത് പോലെ അപ്പോൾ ഇത് എത്ര പൈസ കഷ്ട്ടപ്പെട്ടിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത് സ്പീഡ് ഇല്ല എന്നല്ല ഒരു ഒരു ഉപകാരവുമില്ല ഇതിനെ കൊണ്ടിട്ട് ഒരു ഒരു ഒരു ആപ്പ് ഇൻസ്റ്റാൾ ആക്കണ്ടെങ്കിൽ എത്ര സമയമാണ് എടുക്കുന്നത് ഭയങ്കര ലാഗ് പോലെ ഇത് ഒരു റേഞ്ച് കിട്ടുന്നുമില്ല ഒട്ടും സ്പീഡ് ഇല്ല നെറ്റിന് ഒരു ഇപ്പോൾ ആരെങ്കിലും ഒരു എന്തെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് എടുക്കാമെന്ന് വെച്ചാൽ ഒരു ഇതില്ല ഒരേ കറങ്ങലാണ് കറങ്ങിയിട്ട് നമുക്ക് ഒന്നും കിട്ടുന്നുമില്ല വേറെ ഒര് ഒരു വൈഫൈ വൈഫൈ എന്നെല്ലാം പറഞ്ഞാൽ ഇങ്ങനെയാണോ വേണ്ടത് നമ്മൾ പൈസ തന്നതെങ്കിലും മു മുതലാവേണ്ടേ നമുക്ക് ഒരു ഉപകാരം ഇല്ലാണ്ട് എന്തിനാണ് വെറുതെ നിങ്ങൾ പൈസ ഒക്കെ ഒന്നിക്കിൽ നിങ്ങൾ ഇത് ഒന്ന് കംപ്ലൈൻറ്റ് വന്ന് ശരിയാക്കുക അല്ലെങ്കിൽ വൈഫൈക്ക് സ്പീഡ് കൂട്ടുക എന്തെങ്കിലും ഒന്ന് ചെയ്യണം നമ്മൾ പൈസ തരുന്നതല്ലേ അല്ലെങ്കിൽ വെറുതെ ഒന്നുമല്ല നിങ്ങൾ പിന്നെ ഒരു എന്താണ് പറയുക